ആ ആരാണ് വിളിക്കുന്നത് ആ പറയൂ എന്താ എന്താ വിളിച്ചത് ആ അപ്പോൾ എന്ത് പിന്നെ ആ പറഞ്ഞോളൂ അതെ പിന്നെ ആ രാവിലെ എത്ര മണിക്കെണീക്കും ആ എണീക്കുക യോഗ ഒക്കെ ചെയ്യുന്നയാളാണോ പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ എന്തേലും വേറെ മരുന്നുകൾ എന്തേലും പിന്നെ പിന്നെ പറയൂ ര എന്നാൽ രാവിലെ എണീച്ച് രാവിലെ ഒരു എപ്പോഴാണ് എപ്പോഴാണ് എണീക്കുക ആ എണീക്കണ സമയം മനസ്സിൽ വേറൊരു ചിന്തകളൊന്നുമില്ലാതെ പിന്നെ നല്ല ഇതിലൊരു യോഗ ചെയ്യാൻ നോക്കുക പിന്നെ ഫോണൊക്കെ ഉപയോഗിക്കുന്നാളാണോ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം യോഗയും പിന്നെ നല്ല വേറെള്ള ടി വി കാണുക പിന്നെ പുറത്ത് അടുത്തുള്ളാൾക്കാരുമായിട്ട് നല്ല രീതീയിൽ സംസാരിച്ചിരിക്കാൻ നോക്കുക

അങ്ങനുള്ള ഇതൊക്കെ ചെയ്ത് നോക്കാം ആ ഇല്ല പോവൊന്നും വേണ്ട കുറച്ച് സമയം ആൾക്കാരായിട്ടൊക്കൊന്നൂടെ പഴകി ടി വി ഒക്കെ കണ്ട് മുറ്റത്തെ ഒക്കെ ഒന്ന് ഇറങ്ങി എല്ലാ ചെടികളൊക്കെ നട്ട് അങ്ങനെ ഒക്കെ അതൊക്കൊന്ന് നോക്കി നല്ല നല്ല മനസ്സൊക്കൊന്ന് ശരിയായില്ല ശരിയായില്ല